എൻ്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു അപ്പോൾ ഏതൊക്കെ കൃഷി എപ്പോൾ ചെയ്യണം എന്നും ചെടികൾക്ക് എന്തെല്ലാം വളങ്ങൾ നൽകണമെന്നും ചെടികളെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ പറഞ്ഞു തരുമായിരുന്നു പൂച്ചെടികളായാലും പച്ചക്കറികളായാലും അതിലൊക്കെ ചെടികളിൽ വരുന്ന കീടങ്ങളെ നശിപ്പിക്കാൻ ചെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കീടനാശിനികളുടെ ഉപയോഗം അതെല്ലാം എങ്ങനെയാണ് അതെല്ലാം ഓരോന്നും എങ്ങനെയാണ് ചേർക്കേണ്ടത് ജൈവ കൃഷികൾ ജൈവ പച്ച വളങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ജൈവ കീടനാശിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നെല്ലാം എൻ്റെ അച്ഛൻ തന്നെയാണ് എനിക്ക് പറഞ്ഞു തരാറുള്ളത് അതുകൊണ്ടു തന്നെ ഞാൻ എൻ്റെ ചെടികളെ നന്നായി സംരക്ഷിക്കുകയും ചെടികൾ ഒന്നും കേടു വരാതെയും ചീഞ്ഞു പോകാതെയും സംരക്ഷിക്കാറുണ്ട് മഴക്കാലത്തൊക്കെ അധികം ചെടിച്ചട്ടികളിൽ ഉണ്ടാവുന്ന വെള്ളമൊക്കെ തൊറന്നു വിടുകയും അല്ലെങ്കിൽ അതൊക്കെ ഒഴിച്ച് കളയുകയും അവർക്ക് ആ സമയത്ത് ചെടികളിൽ ധാരാളം പച്ചില വളങ്ങൾ ചേർക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ചെടികൾ പൂച്ചെടികളായിക്കോട്ടെ ചീഞ്ഞു പോകാതെ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും